നമ്മുടെ കാലാവസ്ഥ വിളകൾ നല്ലൊരു ശതമാനം നെഗറ്റീവായിത്തന്നെ ബാധിക്കുന്നുവെന്നു പറയാം കാരണം ഈ കണ്ടിന്യുവസായിട്ടുള്ള മഴ കുറേ സമയത്ത് ഫുൾ ചൂട് അപ്പം അതു വിളകളെ വളരെ ബാധിയ്ക്കയാണ് ചെയ്യുന്നത് അപ്പം വിളകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ മഴയുടെ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതാണ് വാസ്തവം പിന്നെ ചൂട് സമയത്താണെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് വെള്ളം പമ്പ് ചെയ്തൊക്കെ കൊടുത്തു തത്ക്കാലം അങ്ങനെയങ്ങ് നിൽക്കുന്നു എന്ന